പത്രത്തിൽ വായിക്കുന്നത് വായിക്കുന്ന കാര്യങ്ങൾ വായിക്കുന്നത് ബിസിനസ്സ് പരമായിട്ടുള്ളതും എൻറ്റർറ്റെയിൻമെൻറ്റുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് എൻറ്റർറ്റെയിൻമെൻറ്റെന്ന് പറയുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിലെന്തോ നടക്കുന്ന സമൂഹത്തിലെ ഓരോരോ കാര്യങ്ങളും ആ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് പത്രത്തിലൂടെ നമുക്കയച്ച് തരും പത്ര വായന എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ഒരു കാര്യം തന്നാണ് പത്രം വായിക്കുമ്പോൾ അതിൽ പത്രം വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെതായിട്ടുള്ള അറിവുകൾ ഇൻഫോർമേഷൻസും അത്പോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും നമുക്ക് പത്രമായിട്ടുള്ള നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ് അത്പോലെ തന്നെ പത്രം വായനയിലൂടെ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നും അതിനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റും പത്രം വായിക്കുമ്പോൾ ഞാൻ വായിക്കുന്നത് എൻറ്റർറ്റെയിൻമെൻറ്റായിയിട്ടുള്ള കാര്യങ്ങളാണ് വായിക്കുന്ന എൻറ്റർറ്റെയിൻമെൻറ്റ് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് ഓ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെട്ടതായിട്ടുണ്ട് അതായത് സിനിമാ പരമായിട്ടും സ്പോർട്സ് പരമായിട്ടും സമൂഹത്തിൽ നടക്കുന്ന നാട്ട് വാർത്തകളുമായിട്ടാണ് പത്രത്തിലൂടെ നമുക്ക് ഞാൻ വായിക്കുന്നത് അത്പോലെ തന്നെ പത്രവായനയിലൂടെ നമുക്കൊത്തിരി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതായത് സമൂഹത്തിൽ എന്ത് നടക്കുന്നു സമൂഹത്തിലുള്ള പല രാജ്യങ്ങളിലുള്ള ഈ ലോകത്തിൽ തന്നെ നടക്കുന്ന പല കാര്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സമൂഹത്തിലുള്ളത് പോലെ തന്നെ എല്ലാത്തിനും അതിൻറ്റേതായിട്ടുള്ള അധിഷ്ഠിത കലകളും നിയമപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും രാഷ്ട്രീയപരമായിട്ടും രാഷ്ട്രീയപരം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇതിൽ തന്നെയുണ്ട് സമൂഹത്തിലും അതായത് സ്പോർട്സ് വായിക്കുമ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അപ്പം എൻറ്റർറ്റെയിൻമെൻറ്റ് എൻറ്റർറ്റെയിൻമെൻറ്റെന്ന് പറയുമ്പം അതിൽ പല പല കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ബിസിനസ്സെന്ന് പറയുന്നത് ബിസിനസ്സ് നമുക്ക് എങ്ങനെ നടത്താം അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്